ഞാൻ പ്രാദേശികമായി കാണുന്ന യൂട്യൂബ് ചാനൽ വച്ചാൽ കരിക്ക് അലമ്പൻസ് അരുൺ പ്രദീപ് എന്നിവരുടെയാണ് ഇവരുടെയൊക്കെ എല്ലാം ഹാസ്യം നിറഞ്ഞ വീഡിയോകളാണ് ഇതു കാണുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടവും ഈ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ യൂട്യൂബ് വീഡിയോയിലുണ്ട് ഇതൊക്കെ എല്ലാവർക്കും നല്ലതാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതൊക്കെ കാണിച്ച് കൊടുക്കാറുണ്ട് ഇവരെ ചാനലുകൾ നല്ല റീച് ബേയ്സ്ഡാണ് അവരൊക്കെ എല്ലാവരെയും ചിരിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ കാണുന്ന ടിവി പ്രോഗ്രാമുകൾ എന്നു വച്ചാൽ ബിഗ്ബോസ് ഉണ്ട് ഇതേ പോലെ കുറേ ടിവി പ്രോഗ്രാമുകളും ഞാൻ കാണാറുണ്ട് പിന്നെ ഞാൻ മറ്റ് ഭാഷകളിലെ കുറേ സിനിമകളും ഇതും കാണാറുണ്ട് ഇംഗ്ലീഷ് ബേയ്സ്ഡ് ആയി സിനിമകളും സീരീസുകളും ഒക്കെ ഞാൻ കുറേ കാണാറുണ്ട് ഇവരൊക്കെ വീഡിയോസ് നല്ലതും കുറേ വിവരങ്ങളും തരുന്നതാണ് പിന്നെ നമ്മൾ ഇതുപോലെ എല്ലാ ചാനലുകളും കണ്ടതാണ് പിന്നെ മലയാളത്തിൽ ഞാൻ മറ്റ് പാട്ടുണ്ടാക്കുന്ന ചാനലുകൾ കാണാറുണ്ട് പിന്നെ ടിവി പ്രോഗ്രാമുകൾ കുറേ കാണാറുണ്ട് എഫ് ഐ ആർ എന്ന ടിവി പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് ഇതേ പോലത്തെ കുറേ പ്രാദേശികമായ യുട്യൂബ് ചാനലുകൾ ടിവി പ്രോഗ്രാമുകളും ഞാൻ കാണാറുണ്ട് പിന്നെ ഇവയൊക്കെ നമുക്ക് അറിവും നൽകും വിവരവും നൽകും കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തരുന്നതാണ് പിന്നെ കുറേ വില്ലേജ് ഫുഡ് ചാനൽ എന്ന ചാനൽ ഞാൻ കാണാറുണ്ട് ഇതൊക്കെ കുക്കിങ്ങിന് നമ്മെ സഹായിക്കും നമുക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം കുറേ രീതിയിൽ ഭക്ഷണങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ച് തരും ഇവരുടെയൊക്കെ വീഡിയോസ് നമുക്ക് വളരെ ഉപയോഗകരമാണ് നമ്മളെ ജീവിതത്തിൽ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യും ഇതാണ് നമ്മളെ ജീവിതത്തിനെല്ലാം സഹായകരമാണ് പിന്നെ ഞാൻ മറ്റ് ഭാഷകളിലായി തമിഴ് തെലുങ്ക് ഹിന്ദി ഒക്കെ ഞാൻ കാണാറുണ്ട് വി ചാനലുകളും ഒക്കെ ഞാൻ കാണാറുണ്ട് എന്നെ കുറേ സഹായിച്ചിട്ടുമുണ്ട് ഇതേപോലത്തെ നമ്മൾ മറ്റ് ഭാഷകൾ കാണുന്നത് നമുക്ക് നല്ലതാണ് നമ്മളെ കുറേ കാര്യങ്ങളിൽ ചെയ്യാൻ സഹായിക്കും നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് യുട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും മലയാളത്തിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ എല്ലാത്തിലും നമുക്ക് എല്ലാം പറഞ്ഞ് തരും ഷാൻ ജിയോയുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ കുറേ വീഡിയോസിൽ കുക്കിങ്ങ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പരിഹാരവും യൂട്യൂബ് നൽകാറുണ്ട് നമുക്ക് എന്ത് പ്രശ്നമുണ്ടോ നമുക്ക് അത് സഹായിക്കാനായി യുട്യൂബിൽ എല്ലാം പറഞ്ഞ് തരുന്ന കുറേ ആൾക്കാരുണ്ട്